പരമ്പരാഗത അവസരങ്ങളിൽ നൃത്തങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അതേപോലെ ഡ്രെസ്സുകളും അതേ ആഭരണങ്ങൾ തന്നെയാണിന്നും ഉപയോഗിച്ച് പോരുന്നത് അത് എല്ലാം തന്നെ എല്ലാം തന്നെ ആ ഡ്രസ്സിലും അവരുപയോഗിക്കുന്ന ഒർണമെൻസിലൊക്കെ ആണ് അതിൻ്റെ ഭംഗിയും ചാരുതയും ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ തിരുവാതിരക്കളി ഒപ്പനകളി മാർഗ്ഗം കളി മുതലായ കളികളാണ് സാധാരണ പരമ്പരാഗത കളികളിൽ ഉള്ളത് തിരുവാതിരക്കളി ക്ക് മുണ്ടും നേരിയതും അണിഞ്ഞ് വലിയ കാശി മാല നാഗപടമാല മുല്ലമൊട്ട് മാല പോലുള്ള മാലകളൊക്കെയാണവർ ധരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ഒപ്പന കളിക്ക് മണവാട്ടീടെ പരമ്പരാഗത മണവാട്ടീടെ വേഷം ധരിച്ച് വരുന്ന കളികളാണ് കളിയാണത് മാർഗ്ഗം കളിക്ക് ചട്ടേം മുണ്ടും ഉപയോഗിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്